ആ ഓക്കേ പറഞ്ഞോളൂ മാഡം ബൈക്ക് ആണോ ഉണ്ട് മാഡം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ടുവീലേഴ്സും ഇവിടെ അവൈലബിൾ ആണ് ആ ഓക്കെ ആണല്ലേ

ആ നമുക്കിപ്പോൾ ഹിമാലയൻ ഒക്കെ ആണെങ്കിൽ പെർ ഡേ ഒരു ടു തൗസൻറ് ഒക്കെയാണ് റെൻറ് വരുക

എണ്ണ നമുക്കൊരു വൺ പോയിൻറ് ഫൈവ് ലിറ്റർ വെച്ചിട്ടാണ് എല്ലാ വണ്ടികളിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ആ നിയറെസ്റ്റ് പമ്പ് വരെ എത്താനുള്ളതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും ബാക്കി ഇപ്പോൾ നിങ്ങളോടുന്നതിനുള്ളത് നിങ്ങൾ തന്നെ അടിക്കണം ആ പെർ ഡേ രണ്ടായിരം രൂപ ഹിമാലയന് കേട്ടോ ബുള്ളറ്റിനാണെങ്കിൽ ഒരായിരത്തഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് ആ ഒരു ബഡ്ജറ്റ് ഒക്കെ വരും ഒരു ത്രീ ഫിഫ്റ്റി ആ ഓക്കെ നമുക്കിപ്പോൾ പെർ ഡേ ഒരു ഫോർ ഹൺഡ്രഡ് ആ ഒരു ബ കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ഒരു ദിവസം ഒരു നാനൂറ് കിലോമീറ്റർ വരെ മാക്സിമം അതു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അഡിഷണൽ പേയ്മെൻറ് ചെയ്യേണ്ടിവരും കാരണം നമുക്കിപ്പോൾ കിലോമീറ്റർ അത്രയും കൂടുതലോടുമ്പോൾ നമുക്ക് വണ്ടിക്ക് അതിനനുസരിച്ചു മെയ്ന്റനൻസും കാര്യങ്ങളുമൊക്കെ വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ അഡിഷണൽ എത്ര കിലോമീറ്റർ ഓടുന്നുണ്ടോ അതിനനുസരിച്ചു ചെറിയ പേയ്മെന്റിൽ വ്യത്യാസം വരും എങ്ങനെ പെർ ഡേ നമുക്ക് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് നാനൂറ് കിലോമീറ്റർ കൂടുതൽ പോയാൽ മാത്രം നമുക്ക് അഡിഷണൽ പേയ്മെൻറ് കാര്യം വരും അതായത് എത്ര കിലോമീറ്റർ കൂടുതലോടുന്നുണ്ടോ അതിനനുസരിച്ചു നമ്മൾ പേയ്മെന്റും കാര്യങ്ങളും ചാർജ് ചെയ്യും ആ

ഇല്ല മാഡം വരുന്നദിവസം നമുക്കിവിടെ വണ്ടി എങ്ങനേയായാലും സ്റ്റോക്ക് ഉണ്ടാവും കാരണം നമ്മളിങ്ങനെ ഒരുപാട് വണ്ടികൾ സ്റ്റോക്കിൽ വയ്ക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ഏതു വണ്ടികളാണോ നമുക്ക് പോവുന്നത് ആ വണ്ടികൾ തന്നെ നമുക്കൊരുപാട് തന്നെ സ്റ്റോക്ക് ഉണ്ടിവിടെ അപ്പോൾ മാഡം അതൊന്നും ഓർത്തു വറി ചെയ്യേണ്ട മാഡം വരുമ്പോൾ വണ്ടി ഇവിടെയുണ്ടാവും വേണ്ട വേണ്ട നേരത്തെ ബുക്ക് ചെയ്യുകയൊന്നും വേണ്ട

ഓക്കെ മാം ആ ലൊക്കേഷൻ ഇട്ടുതരാം മാഡം ആയിക്കോട്ടെ